കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയ വളരെ മോശമായി മാറികൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആകെ നമ്മുടെ ഗവൺമെൻറ്റ് ജോലികൾക്കാണ് എല്ലാവരും തിക്കിതിരയുന്നത് ആ സമയങ്ങളിൽപ്പോലും നമ്മുടെ പൗരന്മാർക്ക് പൗരന്മാരുടെ പങ്കാളിത്തത്തെ അവർ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലിക്കായി ശ്രമിക്കുന്ന പാവപ്പെട്ടവരായ പല ആളുകളുണ്ട് അവർക്കൊന്നും വേണ്ടത്ര പരിഗണന ഇവർ കൊടുക്കുന്നില്ല നമ്മളിതിനെതിരെ നല്ലവണ്ണം പ്രതികരിക്കേണ്ടതാണ് നമ്മുടെ പങ്കാളിത്തം പൗരന്മാരുടെ പങ്കാളിത്തം അല്ലെങ്കിൽ പൊതു പൊതു ജനങ്ങളുടെ ഈ പങ്കാളിത്തം കാണിക്കാനാരും അനുവദിക്കുന്നതേയില്ല നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാര്യം ജോലി ജോലി പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നമ്മുടെ തൊഴിലില്ലായ്മ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമുക്കു തൊഴിൽ വളരെയധികം കുറഞ്ഞുവരികയാണ് നമുക്ക് തൊഴിലുകൾ കിട്ടുന്നില്ല വേണ്ടുന്നത്ര പ്രതിബലം കിട്ടുന്നില്ല എല്ലാറ്റിലും പുറമേ പാവപ്പെട്ട വാർദ്ധക്യ കാലത്തിലിരിക്കുന്നവരുടെ പെൻഷൻ കറക്റ്റായിട്ടു കൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയരീതികളിലിപ്പം പലതരം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു തരത്തിലും നമക്കിതിങ്ങനെ ഓവർ ക്കം ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളും പരിഹാരങ്ങളും അവർ തന്നെ മുന്നോട്ടെടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പൗരന്മാരും അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല അതിനാൽത്തന്നെ ഇതിനേപറ്റി ഒരുകാര്യങ്ങളിലേക്കും ഒരു മുൻധാരണകളോ മുൻവിധികളോ ഒന്നും നടക്കുന്നതായി കാണുന്നില്ല എല്ലാറ്റിനും വേണ്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ സിവിൽ സമൂഹത്തിൻ്റെയും സർക്കാർ എന്നീ സംഘടനകളുടെയും ഒക്കെ ഒക്കെ പങ്കു വളരെയധികം കുറഞ്ഞു വരികയാണ് ഇതിനെതിരെ നമ്മുടെ ശാക്തീകരണം അല്ലെങ്കിൽ ജനകീയ പങ്കാളിത്തം പൗരന്മാരുടെ ജനകീയ വക്താവെന്ന ശാക്തീകരണം നമ്മുടെ സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം ഇതൊന്നിനെയും പറ്റി ഇവർ ഒന്നും കാണിക്കുന്നതുമില്ല നമുക്കൊന്നിനെയും പറ്റി നമ്മുടെ പെൻഷൻ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്